പാട്ടു വളരെ അധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഞാന് മലയാളം ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലുള്ള പാട്ടുകൾ ഞാന് സാധാരണ കേൾക്കാറുണ്ട് മലയാളം സിനിമയിലെ പാട്ടുകൾ കാണാനും കേൾക്കാനും ഇഷ്ടമുള്ള ഒരാളാണ് പാട്ട് പാടാനും പഠിക്കാനും ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് ദിവസത്തിൽ കഴിവതും ഒരു മണിക്കൂറെങ്കിലും ഞാന് പാട്ട് പാടി നോക്കാന് വേണ്ടി മാറ്റി വെക്കാറുണ്ട് പാട്ട് അത് ഇംഗ്ലീഷ് ആയിരുന്നാലും മലയാളം ആയിരുന്നാലും ഞാൻ പാടി നോക്കാറുണ്ട് ആദ്യം ഞാന് ഏത് പാട്ടായിരുന്നാലും രണ്ടു മൂന്നു പ്രാവശ്യം കേട്ടുനോക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടിട്ട് കൂടെ പാടി നോക്കും അതിന് ശേഷം ഞാൻ വരികളൊരു പേപ്പറിലോട്ട് എഴുതി എടുക്കും എഴുതി എടുത്തതിനുശേഷം വീണ്ടും വീണ്ടും വീണ്ടും പാടി പഠിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇതേപോലെ തന്നെയാണ് ഞാന് ഇംഗ്ലീഷ് പാട്ടുകൾ പഠിക്കുന്നത് എനിക്ക് ഹിന്ദി പാട്ടുകളും പഠിക്കാൻ ഇഷ്ടമാണ് ഇംഗ്ലീഷിൽ ഞാന് മെയിനായിട്ടും ആ ജസ്റ്റിൻ ബീബറിൻ്റെ പാട്ടുകൾ എനിക്ക് ഇഷ്ടമാണ് പിന്നെ മലയാളത്തില് വരികയാണെങ്കില് എനിക്ക് ഈ ചിത്ര പാടുന്ന പാട്ടുകൾ സുജാത പാടുന്ന പാട്ടുകൾ ഒക്കെ ഇഷ്ടമാണ് അവരുടെ പാട്ടുകളൊക്കെ ഞാന് വീണ്ടും വീണ്ടും കേട്ടും പാടി പഠിക്കാൻ ശ്രമിക്കാറുണ്ട് പൊതുവേ ഞാന് എഴുതി പഠിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പാട്ടുകൾ ഞാന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോ മറന്നു പോകാതിരിക്കാന് ഞാനത് ഇടക്കിടക്ക് വീണ്ടും വീണ്ടും വീണ്ടും പാടി നോക്കി പഠിക്കാറുണ്ട് അപ്പോ അങ്ങനെ ഉറക്കെ പാടിയാണ് ഞാൻ സാധാരണയായിട്ട് ഞാന് വീട്ടിൽ പഠിക്കുന്നത് പാട്ട് പഠിക്കാൻ എല്ലാ ദിവസവും ഞാന് പാട്ട് പഠിക്കാൻ നോക്കാറില്ല എല്ലാ ദിവസവും ഞാന് പാട്ട് കേള്ക്കുകയും അവ കൂടെ പാടുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പം കാണാതെ പഠിക്കുന്നത് എന്നുപറയുന്നത് ആഴ്ചയില് ഒരു ദിവസം ഒക്കെ സമയം കിട്ടുന്ന ദിവസമൊക്കെ അപ്പം മാത്രമാണ് എല്ലാ തരത്തിലുള്ള ഇംഗ്ലീഷ് മലയാളം ഹിന്ദി മാത്രമല്ല വേറെ ഭാഷകളിലുള്ള പാട്ടുകൾ ഞാന് കേൾക്കാൻ ശ്രമിക്കാറുണ്ട് കൊറിയൻ പാട്ടുകൾ കേൾക്കാനിഷ്ടമാണ്